ഹലോ യെസ് കേൾക്കാമല്ലോ

പെരുന്നാൾ വളരെ പവർ ഫുള്ളായിരുന്നു ആ നമ്മുടെ പെരുന്നാൾ മറ്റ് വർഷങ്ങളിലെ കാളും വളരെ മികവുള്ളതായിട്ടാണ് തോന്നിയത് ആ പ്രത്യേകിച്ച് അതിരൂപതയിൽ വന്ന ഒരു അച്ചന്മാരും ഇടവക വികാരി അച്ഛൻറ്റെം പാരിഷ് കൗൺസിൽ അംഗങ്ങളുടെയൊക്കെ കൂട്ടായ പ്രവർത്തനങ്ങൾ വളരെ ഇടവകക്കാരേം ഒന്നിച്ച് കൂട്ടുന്നതിലും മറ്റേ അരൂപയിൽ പ്രാർത്ഥിക്കുന്നതിലൊക്കെ വളരെ സഹായിച്ചു ആ അ പിന്നെ ആൾ ഇടവകയിലെ ഏതാണ്ട് ഏറെക്കുറെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും പ്രാർത്ഥിത ഉണ്ടായിരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ആ അതെ അതെ അതെ അതെ അതെ അതെ പ്രദക്ഷണം ഒക്കെ വളരെ സാധാരണ പ്രദക്ഷണത്തിൽ നിന്ന് കോവിഡ് ഒക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി കുറെ കൂടെ നന്നായിട്ട് കവർ ചെയ്യാനും ഒരു വലിയ നമ്മുടെ ക്രസ്തവ സമൂഹത്തിൻ്റെ നല്ലൊരു ആശയോം ആ ഈ ദേശവാസികൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നാണ് എൻ്റെ തോന്നൽ അത് ശരി അത് ശരി അത് ശരി ആ എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചു എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചു അതെ അതെ അതെ ആ വേറെ അത് ശരി അത് ശരി അത് ശരി അത് ശരി അവിടെയൊക്കെ ഇല്ലില്ലില്ല വളരെ വളരെ നല്ല ചിട്ടയോട് കൂടിയായിരുന്നു ചിട്ടയോടു കൂടിയായിരുന്നു ആൾക്കാർ വളരെ നല്ല ഇതായിരുന്നു കുട്ടികളും യുവാക്കളും യൂത്തും എല്ലാം ഒരു വളരെ വളരെ അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ ആ ഓക്കേ സന്തോഷം വിളിച്ചതിൽ സന്തോഷം അവിടെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രല് സന്ദർശിച്ചിട്ടേ വരാവുള്ളൂ കേട്ടോ ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രല് സന്ദർശിച്ചിട്ടേ വരാവുള്ളൂ ആയിക്കോട്ടെ ഓക്കേ ഓക്കേ ഓക്കേ ശരി ശരി ശരി ശരി സന്തോഷം സന്തോഷം അതെ അതെ അതെ അതെ അതെ അതെ അതെ

അതെ അതെ ഓക്കേ താങ്ക് യൂ താങ്ക് യൂ